ഇപ്പം കുട്ടികാലത്ത് പല രീതീലുള്ള കളികളും കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നൂന്ന് വേണേൽ പറയാം ഇപ്പം അക്ക് കളി കൊത്തൻ കല്ല് കളി പിന്നെ ഗോലി കളി ഇപ്പം ഗോട്ടികളി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോട്ടി ഒക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടീട്ട് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഡപ്പീയിൽ ഫുൾ ഗോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അതിന് ഉള്ളിൽ കണ്ണക്കെ ആയിട്ടൊള്ള ഒരു ഗോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും ഇല്ല ഗോട്ടികളൊക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരു കളികളക്കെയായിട്ട് മാറിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പഴത്തെ പിള്ളാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മൊബൈലിലൂടെ ആണ് പല രീതിയിലുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്ന് നമുക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഉണ്ടാരുന്ന പണ്ട് കാലത്ത് നമ്മൾ എല്ലാം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കളികളും കാര്യങ്ങളക്കെ ആയിരുന്നു അപ്പം അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അന്ന് കളിച്ചോണ്ടിരുന്ന നമുക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനത്തെ പല രീതീലുള്ള കളികൾ കാര്യങ്ങളക്കെ ഉണ്ടായിരുന്നു ഇതിനോക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതീലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഗോട്ടികളി ആണ് ആണെങ്കിൽ നമ്മളൊരു ഒരു നിശ്ചിത ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവടെ നിന്നിട്ട് വേണം നമ്മൾ ഗോട്ടി വരയ്ക്കാൻ എന്നിട്ട് മറ്റേ ഗോട്ടിക്ക് തട്ടിക്കണം അങ്ങനെയെക്കെ ആണ് കളി ഉണ്ടായിരുന്നത് പിന്നെ അക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് കളം ഉണ്ടാവും ആ കളത്തിന്റെ ഉള്ളിൽ നമ്മൾ ചാടി ഒറ്റക്കാലും കൊണ്ട് ചാടി ചാടീട്ടാണ് അക്ക് കളിക്കുന്നത് അങ്ങനത്തെ പല നിയമങ്ങളും കാര്യങ്ങളക്കെ ഉണ്ടായിരുന്നു